ആ അതെ അതേ

ഓ ഇവിടത്തെ വാഷ്ബേസിലെയാണോ അതോ പുറത്ത് പുറത്തെയാണോ ബാത്ത് റൂമിലാണോ ആ അയ്യോ ഞാന് ഇപ്പോള് ഓ ആ ഇത് നല്ല നല്ല രീതിയില് ലീക്കേജ് ആവുന്നുണ്ടോ ആ കേള്ക്കാം കേള്ക്കാം ഇത് ഇട്ടിരിക്കുന്ന മറ്റേ രണ്ടിഞ്ചിന്റെ പൈപ്പാണോ അതോ ഹലോ എക്സ്ക്യൂസ് മീ

രണ്ടിൻജിൻറ്റെ ആ കേള്ക്കാം കേള്ക്കാം രണ്ടിന് രണ്ടിഞ്ചിന്റെ പൈപ്പാണോ അതോ ഓ അപ്പോള് ഒരു അപ്പോള് അതിന്റെ പൈസയൊന്ന് അഡ്വാന് അഡ്വാന്സായിട്ട് തന്നിരുന്നെങ്കില് കൊള്ളാമായിരുന്നു കേട്ടോ ഓ ഗൂഗിള് പേ ആയിരുന്നാലും മതി അയ്യോ എന്നാല് ഇപ്പോഴത്തേക്ക് ഞാന് ഇപ്പോള് വാങ്ങിയിട്ട് വരാം എന്റേ വണ്ടി ഉണ്ട് ഓ പെട്രോളുണ്ട് ഏ അല്ല അത് ബുദ്ധിമുട്ടാവില്ലേ ഇപ്പോള് അവിടെ ആള്ത്തിരക്കുണ്ടോ അതാണോ ഓ ഏ എന്നാല് ഈ എല് എല്ബോ വാങ്ങാം എന്നുവച്ചാല് അവിടുത്തെ ആ എല്ബോ വളഞ്ഞിരിക്കുന്ന ആ ഭാഗമാണോ പൊട്ടിയിരിക്കുന്നെ അതോ ഓ അപ്പോള് ബാത്ത്റൂമിൻറ്റകത്തുള്ള വാഷ് ബെയിസാണോ അല്ലാ മോട്ടറില് മോട്ടറില് ടാങ്കില് വെള്ളം പൊയ്ക്കോണ്ടിരിക്കുകയാണോ ഓയ് അപ്പോള് മറ്റേ ഇതൊക്കെ വെള്ളം വരുന്ന വാല്വൊക്കെ പൊട്ടിയാണോ

അവനീ ഇപ്പോഴത്തേക്ക് ഒരു ഇപ്പോഴത്തേക്ക് ഞാന് വരുന്നതു വരെ ഒന്ന് എന്നു വച്ചാല് അതില് ഒരു തുണിയെല്ലാം ചുറ്റി

ആ അപ്പോള് ഞാന് ഇനിയിപ്പോള് വരാം സാധനങ്ങളൊക്കെ ഞാന് വാങ്ങി വാങ്ങിക്കൊണ്ടുവരാം അപ്പോള് ഈ നീളത്തിലുള്ള പൈപ്പൊന്നും പൊട്ടിയിട്ടില്ലല്ലോ ഒറ്റ സെറ്റ് തന്നെ ആ അപ്പോള് ഓക്കെ ശരി ഞാന് എത്താം ആ എന്റെ എന്റെ ആ നമ്പരില് വിളിച്ചാല് മതി